ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് മൂന്ന് ക്രീമ്കൾ ഓഡറ് ചെയ്തായിരുന്നു എന്നാൽ ഡെലിവറി ചെയ്യാനായിട്ട് എന്റെ വീട്ടിലെത്തിയ ആൾ എന്നോട് വളരെയധികം അപമര്യാദയായി കരമായിട്ടാണ് സംസാരിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം കൂടുതൽ ദേഷ്യത്തോടെയാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞായിരുന്നു നിലവിൽ ഞാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വീട്ടിൽ വന്ന് ഓഡർ സീകരിക്കുന്നത് എനിക്ക് വളരേയധികം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷെ അദ്ദേഹം ഞാൻ ഓൾറെഡി സാധനത്തിന് പേ ചെയ്തിട്ടുണ്ട് അതെന്റെ വീട്ടിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെനിന്നും സാധനം സൈൻ ചെയ്തു വാങ്ങിച്ചാൽ മതിയാരുന്നു പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല പകരം ഞാൻ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു അത് എനിക്ക് ഏറ്റവും ഒരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല